മൃഗ വളർത്തൽ സാധാരണയായി വളർത്തുന്ന മൃഗങ്ങൾ പശുക്കൾ ആട് കോഴി കാട മുയൽ എന്നിങ്ങനെയൊക്കെയുള്ളതാണ് അപ്പോൾ ഇവരിൽ നിന്നൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ പശുവിൻ്റെ കാര്യം എടുത്താൽ അതിൽ നിന്ന് പാൽ കിട്ടും അതുപോലെതന്നെ ഈ ചാണകം ഒക്കെ ചെടികൾക്ക് വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ആടാണെങ്കിൽ അതിൽ അതിൽ നിന്നും പാൽ കിട്ടും പിന്നെ അതുപോലെ തന്നെ ആട്ടിൻകാട്ടം ഒക്കെ ചെടികൾക്കായിട്ട് നമുക്ക് വളങ്ങളായിട്ട് ഉപയോഗിക്കാം ഈ ആട്ടിൻപാലെന്ന് പറയുന്നത് വളരെ ഔഷധഗുണമുള്ളൊരു പാലാണ് പിന്നെ കോഴികളിൽ നിന്ന് നമുക്ക് മുട്ടയും കിട്ടും അതുപോലെ തന്നെ ഇറച്ചിയും കിട്ടും പിന്നെയുള്ളത് മുയൽ മുയലും നമുക്ക് നമ്മളുപയോഗിക്കുന്നത് മുയലിറച്ചിയ്ക്ക് വേണ്ടിയും പിന്നെ പിന്നെ മുയലിറച്ചിക്ക് വേണ്ടി നമ്മളുപയോഗിക്കും അതുപോലെതന്നെ വളരെ എളുപ്പമാണ് അതിനെ വളർത്താൻ കുറച്ച് പുല്ല് പിന്നെ നമുക്ക് വീടുകളിൽ വളർത്താൻ എല്ലാവർക്കും ഇഷ്ടവും ആയിരിക്കും പിന്നെയുള്ളത് കാട കാടപ്പക്ഷിയിൽ നിന്ന് മുട്ട കിട്ടും അതിനും നല്ല ഔഷധഗുണം ഉള്ളതാണ് പിന്നെ കാടയുടെ ഇറച്ചി അതും നല്ലതാണ്

പിന്നെ ആ ആട്ടിൻകുട്ടിയുണ്ട് ആട്ടിൻകുട്ടി ആട്ടിൻകുട്ടീനെ വിറ്റു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പൈസ കിട്ടും പിന്നെ ആടുകൾ തന്നെ പല ഇനങ്ങളുണ്ടല്ലോ ഈ ജംനാപ്യാരി അങ്ങനെയൊക്കെ പറയുന്നതിനൊക്കെ ഭയങ്കര ഭയങ്കര റെയ്റ്റാണ് അപ്പം അതൊക്കെ വിൽക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽതന്നെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും